ഇന്നത്തെ ഈ കാലത്ത് സ്ത്രീകൾക്ക് നമ്മുടെ കോഴിക്കോട് ജില്ലയില് മാത്രല്ല നമ്മുടെ കേരളത്തിലൂടെ നീളം ഇത്തരത്തില് ഒന്നിലും ഒരു മേൽക്കോയ്മയില്ലായ്മയൊന്നും ഒന്നിലും വരലില്ല കാരണം നമുക്കറിയാം സമത്വം നീതി ഇതൊക്കെ ഈ സമയത്ത് നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിൽ ഇതില് വളരേ പ്രധാനമായും നമ്മള് നോക്കി കാണുന്ന ഒന്ന് തന്നെയാണ് മലയാളികള് അതിലിപ്പം നമ്മുടെ സ്ത്രീകള് മോശമല്ല കാരണം അവർക്ക് വേണ്ട സമത്വം സ്വാതന്ത്ര്യം അവര് തന്നെ ഇന്നത്തെ കാലത്ത് ചോദിച്ച് മേടിക്കാനും അവര് അവരെ അവകാശമാണ് എന്ന് പറഞ്ഞു കൊണ്ട് മുന്നോട്ട് വരാനും അവരും പ്രാപ്തരാണ് അതുകൊണ്ട് നമ്മുടെ കോഴിക്കോട് ജില്ലയില് വിദ്യാഭ്യാസായിക്കോട്ടെ തൊഴിലായിക്കോട്ടെ സമൂഹത്തില് എന്നിലൊക്കെ സ്ത്രീകള് വെല്ലുവിളികളൊന്നും നേരിടുന്നില്ല പിന്നെ കംപാരിറ്റിവ്ലി പണ്ടത്തെതിനെ വച്ച് കുറഞ്ഞ് വരുന്നുണ്ട് എന്നല്ലാതെ ഈ പൂർണ്ണമായും നമ്മുടെ ആണുങ്ങളുടെ ആണുങ്ങളെപ്പോലെ അല്ലങ്കിൽ പരുഷന്മാരെ പോലെ ഒരു ഒരു സമത്വത്തിലേക്ക് എത്തിയിട്ടില്ല എന്നത് ഒരു വസ്തുതയാണ് എന്നിരുന്നാലും ഇന്നത്തെ നിലയില് വളരെ മും വളരെ വിജയകരമായി സ്ത്രീകളുടെ ആ പരിപാടികള് അല്ലങ്കില് സ്ത്രീകളെ യോചിപ്പിച്ചുകൊണ്ടുള്ള കാര്യപരിപാടികള് എല്ലാം മുന്നോട്ട് പോകുന്നുണ്ട്